ആ പറഞ്ഞോളൂ ആ ചേട്ടൻ്റെ പേരെന്താണ് ആ എവിടാണ് സ്ഥലം ആ ഏത് തരത്തിലുള്ള വീടാണ് ഉദ്ദേശിക്കുന്നത്

കിണർ വെള്ളം വേണമെന്ന് നിർബന്ധമുണ്ടോ കിണർ വെള്ളം വേണമെന്ന് നിർബന്ധമുണ്ടോ

ആ അതായത് മറ്റേ മുൻസിപാലിറ്റിയുടേ പൈപ്പ് വഴിയുള്ള വെള്ളമോ ജലനിധിയുടെ പൈപ്പ് വഴിയുള്ള വെള്ളമോ ഏതാണേലും ആ അപ്പോൾ കിണർ കിണർ കിണർ തന്നെ വേണം

ആ ഓക്കെ ഓക്കെ

അതായത് ഗ്രൺ ഗ്രൌണ്ട് ഫ്ലോറ് മാത്രമായിട്ട് വേണോ അതോ രണ്ട് നിലയായിട്ടാണേലും ഈ പറഞ്ഞ നാല് ബെഡ് റൂമും ഹാള് കിച്ചണ് ആ സൗകര്യങ്ങളുണ്ടായാൽ മതിയോ

ആ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വേയർ ഫീറ്റോളം കുഴപ്പമില്ല അല്ലേ ആ അത് ടൌൺ ഷിപ്പിൽ വേണോ അതോ ഇച്ചിരി ഗ്രാമ പ്രദേശത്തേക്ക് കയറി വേണോ എങ്ങനൊക്കെയാണ് അതിൻ്റെ താല്പര്യം ആ

ആ അപ്പോൾ ചേട്ടന് എന്ത് ബഡ്ജെറ്റിലുള്ള വീടാണ് ഉദ്ദേശിക്കണത് ആ കമ്മീഷൻ നാട്ടിലുള്ള കമ്മിഷൻ തന്നെ ഞങ്ങൾക്ക് ഇതെ കൂട്ട്

ഞങ്ങൾക്ക് കമ്മീഷനുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ളത് ഫൈവ് പേർസെൻറ്റാണ് അതായത് വീട് വാങ്ങുന്ന ആൾ രണ്ട് ശതമാനവും കൊടുക്കുന്ന ആൾ മൂന്ന് ശതമാനവുമാണ് ഞങ്ങൾക്ക് നൽകി കൊണ്ടിരിക്കുന്നത് അത് നാട്ട് നാട് സാധാരണ നാട്ടുനടപ്പാണ് ആ ആ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഒരു ഒരു ടാർജെറ്റുണ്ടാവൂലോ ഇത്ര ലക്ഷം രൂപയുടെ ആണ് വരെ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുണ്ടല്ലോ അത് വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ

ആ അൻപത് രൂപയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ടൌണിനോട് അടുത്തു തന്നെയാണല്ലേ ആ ആ അതായത് ഇപ്പോൾ ഒരു ശകലം കൂടി കയറ്റി പിടിക്കാൻ ഉള്ള സാഹചര്യമുണ്ടോ ഒരു എഴുപത്തി അഞ്ച് രൂപ വരെ

അതാ ഞാൻ പറഞ്ഞത് ഒരു എഴുപത്തി അഞ്ച് ലക്ഷം വരെ കൂടെ കൂടിയാലും കുഴപ്പമുണ്ടോന്ന് അറിയാനാണ് അതനുസരിച്ചുള്ള സൗകര്യപ്രദമായ സ്ഥലമായിരിക്കും

ആ ഉണ്ട്

ആ ആ ആ അതൊരു

അതായത് നമ്മുടെ മെയിൻ റോഡുണ്ടല്ലോ നമ്മുടെ പാറത്തോട് സിറ്റീൽ ആ ആ ആ മെയിൻ റോഡിൽ ടൌണിനോടടുത്ത് ഒരു ഇരുപത് സെൻറ്റ് അതെന്ന് പറയുന്നത് നല്ലൊരു വീട് ഗ്രൌണ്ട് ഫ്ലോറി തന്നെയുള്ളതാണ് ഏ

ആ അപ്പോൾ ഇത് കൂട്ട് വിളിക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ ഞാൻ അത് കണ്ടു വച്ചേക്കുന്ന നിങ്ങൾ അടുത്ത ദിവസം തന്നെ വന്ന് ഇത് കാണുക അപ്പോൾ ഈ ഈ നംബറ്ൽ ഞാൻ അടുത്ത ദിവസം വിളിച്ചേക്കാം അല്ലെങ്കിൽ എന്നാണ് പോകാൻ സൗകര്യം എന്നത് അനുസരിച്ച് ഈ നംബറിൽ എന്നെ ഞാനും ആയിട്ട് ബന്ധപ്പെടുക ഓക്കെ ഓക്കെ ഓക്കെ